ഇല്ല ഒരു മുപ്പത് മിനിറ്റിനുള്ളില് നമ്മൾ അവിടെയെത്തും മേഡത്തിനെ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ മേഡം ഇതിന് മുന്നേ കണ്ണൂര് വന്നിട്ടുണ്ടോ ആ കേട്ടിട്ടുണ്ട്

ആ ഞാ ഞാന് ആ അതിൻ്റെ പരസ്യം കണ്ടിരുന്നു അതെ ഞാൻ കണ്ണൂര്കാരിയാണ് ആ ഞാനൊരു മൂന്നാല് വർഷമായി ഇതി ന്ന് വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇതിന് മുന്നേ എൻ്റെ ഭർത്താവായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഭർത്താവിന് സുഖം ഇല്ലാത്തത് കൊണ്ട് ഞാനാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് മേഡം കുറെ നാളായോ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്

ആ ഞാൻ ചോദിച്ച് ചോദിക്കുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത് എൻ്റെ മോനും ഈ രംഗത്താണ് പ്രവർത്തിക്കുന്നത് അപ്പം അവനൊരു പുതിയൊരു സംരഭം തുടങ്ങണമെന്നുണ്ട് ഒരു ടെക്സ്റ്റൈൽൻ്റെ തന്നെ അപ്പം അതിനെകുറിച്ചൊന്ന് വിശദമായിട്ട് മേഡത്തിന് പറഞ്ഞ് തരാൻ പറ്റുമോ അതേ അല്ലെ ലോണ് കിട്ടുവല്ലേ ആ ഏകദേശം എത്ര രൂപയാൻ രൂപയാണ് എത്ര രൂപ വേണ്ടി വരും ഈ ഒരു സംരഭം തുടങ്ങാൻ

ആ അതിനൊരു സ്ഥലമൊക്കെ കണ്ട് ഏകദേശം വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ബിൽഡിങ്ങ് അതിനുള്ള പരിപാടിയിലാണ് കട മുറി തുടങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ചെറിയൊരു രൂപ ഞങ്ങള് സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട് എത്രയാണ് വേണ്ടി വരിക എന്നൊന്നും അറിയില്ല ഇതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണ ഇല്ല അതാണ് ചോദിക്കുന്നത് മേഡത്തിനോട് അത് അല്ലേ അപ്പോൾ നമ്മുടെ ഇതിന് പഞ്ചായത്തിലോ മുൻസിപ്പാലിറ്റീയിൽ ഒക്കെ പോകേണ്ടി വരുമൊ

അതേ അല്ലെ ആ കണ്ട് വെച്ചിട്ടുണ്ടെന്ന് മകൻ പറയുന്നുണ്ടായിരുന്നു

ആണോ മേഡം എവിടെ നിന്നാണ് ഈ തുണിത്തരങ്ങളെല്ലാം കൊണ്ട് വരുന്നത് അതെ അല്ലെ മേഡത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചതില് ആ ശരി അപ്പോൾ ഞാൻ പിന്നെ തുണിത്തരം എടുക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കില് പറയാം മേഡത്തിനോട് അവിടെ ഒന്ന് മേഡം മേഡം ഒന്നത് ശരിയാക്കി തരണം

ഞാനിതെൻ്റെ മകന് നൽകാം എനിക്ക് ആകുമ്പോൾ ഇതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലല്ലോ അവനുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കാൻ പറ്റുവല്ലോ ആ ദാ ആ കാണുന്നത് ദാ ആ കാണുന്ന ജംഗ്ഷനിലാണ് മെ മേഡത്തിന് ഇറങ്ങേടത് ആ ശരി മേഡം പിന്നെ ഇനി കണ്ണൂരിലേക്ക് വരികയാണെങ്കില് എന്നെ തന്നെ മേഡം വിളിക്കു വ് വിളിക്കണം കേട്ടോ ആ ശരി